കര്ഷകര് മൃഗത്തിന്റെ മാലിന്യം എങ്ങനെ കൈകാര്യം ചെയ്യുന്നു കറ് കര്ഷക മൃഗമെന്ന് പശുവാണ് പിന്നെ മൃഗമെന്ന് പറയുമ്പത്തേക്ക് നമ്മള് അതിന്റെ പ്രധാനമായിട്ടും നമ്മള് ചെയ്യുന്നത് കിട്ടുന്നത് നമുക്ക് ചാണകം ചാണകം ചാണകം കൊണ്ടു നമുക്ക് പലപല കാര്യങ്ങള് ചെയ്യാം ഏറ്റവും നല്ല ഒരു വളമാണ് ചാണകം അത് നമ്മള് ചാണകം അത് പച്ച ചാണകവും നല്ലതാണ് ഉണക്ക ചാണകവും നല്ലതാണ് ഉണക്ക ചാണകമെന്ന് പറയുമ്പം നമ്മളത് നന്നായിട്ടു വെയിലത്തിട്ടു ഉണങ്ങിപ്പൊടിച്ച് ചെടികള്ക്കും നമ്മള് പച്ചക്കറികള്ക്കും എല്ലാം ഇട്ട് കൊടുത്താൽ മതി നന്നായിട്ട് ഉണ്ടാകും പിന്നെ അതുപോലെതന്നെ പച്ചച്ചാണകം നമുക്ക് ഏറ്റവും നല്ലതാണ് പൂക്കൾ ഉണ്ടാകാൻ ഏറ്റവും നല്ലതാണ് പച്ചച്ചാണകം കലക്കി കലക്കി വെള്ളത്തില് കലക്കി ചെടിയുടെ ചുവട്ടിലൊഴിച്ച് കൊടുത്താൽ റോസയൊക്കെ നന്നായിട്ട് പൂവിടും പച്ചച്ചാണകം കൊടുത്താൽ അതുപോലെതന്നെ ചാ ഈ ചാണകപ്പൊടി നമുക്ക് എല്ലാവിധ എല്ലാ വാ വളത്തിനകത്തും നമ്മള് വളങ്ങളിട്ടാലും ഈ ചാണകപ്പൊടി ഏറ്റവും നല്ലതാണ് ചാണകപ്പൊടി ഇടുകയാണെങ്കിൽ നമുക്ക് ഈ പുളി പുളി കുറയും പുളി ഞങ്ങളുടെ ഈ ഞങ്ങള് കൃഷി ചെയ്യുമ്പോള് ഞങ്ങള് കണ്ടം വറ്റി കഴിയുമ്പം ഞങ്ങൾ ഈ പച്ചച്ചാണകം ചാക്കിനകത്ത് കെട്ടി ചാക്കിനകത്ത് കെട്ടി ഞങ്ങള് കണ്ടത്തിൽ കൊണ്ട് ഇടും അപ്പഴത്തേക്കും മാ അടുത്ത പ്രാവശ്യം വരുമ്പം ഈ പുളി കുറഞ്ഞ് കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നമ്മുട് ഈ കൃഷിക്കൊക്കെ ഒരു മഞ്ഞക്കളർ ആയിരിക്കും ഇനി ചാണകപ്പൊടി ഈ ചാണകം പച്ചച്ചാണകം കൊണ്ടിട്ട് കഴിയുമ്പം നല്ല പച്ചക്കളറിൽ ആ പുളിയെല്ലാം പോയി നന്നായിട്ട് അത് വളരും ചാണകമെന്ന് പറയുമ്പം ഏറ്റവും നല്ല ഇതാ അതുപോലെതന്നെ ആ ഗോമൂത്രം ഗോമൂത്രമെന്ന് പറയുമ്പത്തേക്ക് നമുക്ക് പച്ചക്കറികള്ക്കും ചെടികള്ക്കും എല്ലാം നമുക്ക് ഏറ്റവും നല്ല ഒരു വളവാണ് ഗോമൂത്രം നമ്മള് ചെരുവ ആ ഒരു ച ബക്കറ്റില് പിടിച്ച് നമ്മള് ഒരു അര ബക്കറ്റ് ഗോമൂത്രം എടുത്താൽ അതിന്റെ ഒരു മൂന്നിര വെള്ളവും കൂടെ ചേര്ത്ത് നമുക്ക് ഈ പച്ചക്കറിക്കും ചെടികള്ക്കും എല്ലാം ഒഴിച്ച് കൊടുത്താൽ ഏറ്റവും നല്ലതാണ് നമ്മുടെ കൃമികീടങ്ങള് പുഴുവ് ഒന്നും നമുക്ക് ഈ ചെടികളെയൊക്കെ കാത്ത് പരിപാലിക്കാം അപ്പം ആ പശുവിന്റെ ചാണകവും ത്തിനും ഏറ്റവും ഗുണം ഉണ്ട് അതുപോലെതന്നെ മൂത്രത്തിനും ഏറ്റവും നല്ല ഗുണമാണ് അത് ഒന്നും നമ്മള് കളയാതെ നമ്മള് ഓരോന്നിനും ഇപ്പം ഈ പിന്നെ ഈ പശുക്കളെ വളത്തുന്ന ഈ ചിലവ് കൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ ഓരോത്തരൊക്കെ പശുക്കളൊന്നും പശുക്കളെയൊക്കെ ഇപ്പം വളത്തുന്നില്ല എന്നുവെച്ചാൽ ഭയങ്കര ചിലവാണ് ഇതുങ്ങൾക്ക് പുല്ലു കൊടുക്കണം കച്ചി കൊടുക്കണം തീറ്റി മേടിച്ചു കൊടുക്കണം അതുകൊണ്ടു ഇപ്പം ഈ ചാണകത്തിനൊക്കെ നമുക്ക് ഭയങ്കര വിലയാണ് അവിടുന്ന് ഇപ്പം ചാണകം മറ്റത് എല്ലാ വീടുകളിലും പശുക്കളൊക്കെ ഉണ്ട് ആടുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഇപ്പം അത് വളരെ കുറവാണ് അതുകൊണ്ടിപ്പം ഞങ്ങള് നമ്മൾ ഇപ്പം എന്താ വ ഭയങ്കര വില കൊടുത്ത് ആണ് ഈ ചാണകപ്പൊടി മേടിച്ച് നമ്മള് എടുക്കുന്നത് നമുക്ക് ചാണകപ്പൊടി ഒഴിച്ച്കൂടാന് മേലാത്ത ഒരു സാധനമായിട്ട് മാറിയിരിക്കുകയാണ്